എൻ്റെ വീട്ടിലുള്ള ഇലക്ട്രോണിക്സ് സാധനങ്ങൾ എന്ന് പറയുന്നത് ലാപ്ടോപ്പ് കംമ്പ്യൂട്ടർ ടിവി വാഷിംഗ് മെഷീൻ മിക്സി ഫ്രിഡ്ജ് എന്നിവയൊക്കയാണ് ഇതൊക്കെ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് പണ്ട് കാലത്തിലെ പോലെയല്ല മനുഷ്യരൊക്കെ ഇപ്പം ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് ഭക്ഷണം പാകം ചെയ്യുവാനായിട്ടാണെങ്കിലും തുണി കഴുകാനായിട്ട് ഒക്കെ ആണെങ്കിലും ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഉപയോഗിക്കുന്നതിലൂടെ മനുഷ്യന് സമയം ലാഭിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അരകല്ലിലും ആട്ടുകല്ലിലും കഷ്ടപ്പെട്ട് അരച്ചുകൊണ്ട് ഇരുന്നത് ഇപ്പോൾ ഒറ്റ കറക്കിലൂടെ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം നമ്മുടെ സമയവും